ഹലോ ആ ഹലോ ഇത് അനൂസ് ബ്യൂട്ടി പാർലറല്ലേ ആ ഞാന് ശ്യാമയാണ് കേട്ടോ എനിക്ക് മാഡത്തിൻ്റെ ട്രീറ്റ്മെന്റ് വേണമായിരുന്നു അപ്പോള് അതിന് വേണ്ടി വിളിച്ചതാണ് ഞാന് ആ എൻ്റെ മുടിയൊക്കെ ചെറുതായിട്ട് ഒന്ന് പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോള് ഞാൻ ഒരുപാട് ഓയിൽ ഒക്കെ യൂസ് ചെയ്തു അതിൽ ഒന്നും ഒരു മാറ്റവും ഇല്ല അപ്പോള് എൻ്റെ വീട്ടിനടുത്തുള്ള ചേച്ചി ആണ് മാഡത്തിൻ്റെ ബ്യൂട്ടി പാർലറിനെപ്പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞ് റെക്കമൻഡ് ചെയ്തത് അങ്ങനെ വിളിച്ചതാണ് ഞാന് അപ്പോള് അവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് ഉള്ളത് നോർമല്

ആ ആ ആ

ആ എനിക്ക് രണ്ടും ചെയ്യണം കണ്ണിനും മുഖത്തും എല്ലാം പ്രോബ്ലെംസ് ആണ് മുഖത്ത് കുറേ പിംപിൾസ് ഡാർക്ക് സ്പോട്സ് വൈറ്റ് സ്പോട്സ് ഉണ്ട് അപ്പോള് ഞാന് യൂട്യൂബ് ഒക്കെ നോക്കി ചെയ്തിട്ടൊന്നും ഒരു ഫലവുമില്ല അപ്പോള് ഞാന് ഇതൊന്ന് നോക്കാമെന്നുവെച്ചു അപ്പോള് എന്തേലും കംപ്ലയിൻറ്റ് വരുമോ നമ്മൾ ഇത് ചെയ്തിട്ട്

ആ അതിൻ്റെ റേറ്റ് എങ്ങനെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് മാം

ഓ അപ്പോള് ഇടയ്ക്ക് ആ ഇടയ്കിടയ്ക്ക് അപ്പോള് വരേണ്ടിവരും അല്ലേ ആ ആ ആ ഞാൻ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കയാണ് അപ്പോള് അതിൻ്റെ ഇടയില്ക്കൂടി ഇങ്ങനെ വരുകയും പോവുകയും അത് ഞാൻ ഒന്ന് നോക്കണം ലീവ് എടുത്തിട്ട് സംഭവം എനിക്ക് എന്തേലും ചെയ്തേ പറ്റൂ മാം മുഖം അങ്ങ് വല്ലാണ്ടായി കേട്ടോ അപ്പോള് അതും ചെയ്യണം പിന്നെ നെയിൽ ആർട്ട് അങ്ങനെയെന്തേലും ഉണ്ടോ മാം അവിടെ

ഓ ഓ ഓ

ഓ ഓ ഓ അത് എന്താണങ്ങനെ

ഓ നിങ്ങള് അത് ഒന്ന് ചോദിക്ക് ഓക്കെ ഓക്കെ ആ ഓ അതിന് മേം എപ്പോഴൊക്കെ അവിടെ കാണും ഒന്ന് മേമിനെ ഒന്ന് നേരിട്ട് കണ്ട് ചെയ്യാനായിരുന്നു അപ്പോള് മേം എൻ്റെ മുഖം ആണ്

ഫുൾ ടൈം ഉണ്ടാവില്ലേ

ആ ഞാൻ ഫ്രീയാ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോള് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരാം കേട്ടോ ഓക്കെ